ഹലോ ഞാൻ എറണാകുളത്ത് നിന്ന് വിളിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് വയനാട്ടിലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ട്രഡീഷണൽ ഫുഡുകളും എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുവായിരുന്നു രണ്ടും ആയാലും കുഴപ്പമില്ല

ആ ഓക്കെ ഓക്കെ അല്ല ഇതിപ്പോൾ ഉച്ചയ്ക്ക് മാത്രം അല്ലേ മീൽസ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ കഴിയും അല്ലേ ആ ഓക്കെ ഓക്കെ അല്ല രാവിലത്തേക്ക് നമുക്ക് മീൽസ് ആവശ്യമില്ല അപ്പോൾ നമുക്ക് ബ്രേക്ഫാസ്റ്റ് എന്തൊക്കെ ഉള്ളത് ആ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ ഇത് എവിടെയാണ് സ്ഥലം സ്പോട്ട് കറക്റ്റ് ഇവിടെയായിരുന്നു മാനന്തവാടി തന്നെ അല്ലേ ആ ഓക്കെ ഓക്കെ ആ വേറെ ഈ മീൽസിൽ എന്തൊക്കെ തരം കറികളുണ്ടാവും

ആ ആ ഏത് ഈ ആ ഓക്കെ ഈ സേമിയ പായസമോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കുവോ

ആ ഓക്കെ ഓക്കെ ആ പിന്നെ ഫിഷ് ഐറ്റംസ് എന്തൊക്കെയാണ് ഉള്ളത് കരിമീൻ ആ ഓക്കെ വയനാട്ട് അത് പുറത്തുനിന്ന് കൊണ്ടുവരണം അല്ലേ പുറത്തുനിന്ന് കൊണ്ടുവരും ആ ഓക്കെ ഓക്കെ ആ ഇതിന് എത്ര റേറ്റ് ഇപ്പം മീ മീൽസിന് സെവന്റി അതായത് നോ ഫിഷ് ഒന്നും ഇല്ലാണ്ട് ഫിഷ് അടക്കം ആ ഓക്കെ ഓക്കെ ആ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ നാളെ വരുന്നുണ്ട് അങ്ങോട്ടേക്ക് അപ്പോൾ നിങ്ങൾ ഒന്ന് അറേഞ്ച് ചെയ്തേക്ക് ആ ഒരു പതിനഞ്ച് പേർക്ക് വേണ്ട വേണ്ട ഇത് മാത്രം മതി ആ കുഴപ്പമില്ല ആ ഓക്കെ നാളെ വരാം ആ ഓക്കെ ഓക്കെ